ഇന്ത്യയിലെ ഗതാഗതം എല്ലായിടത്തും നല്ല വികസനമാണ് ഉള്ളതും

പൊതുവേ എല്ലാവരും എല്ലായിടത്തും ഉപയോഗിക്കുന്നത് നാഷണൽ ഹൈവേ എന്ന റോഡാണ് എല്ലാ മിക്കവരും ഉപയോഗിക്കുന്നത് കാരണം അവിടെ വാഹനങ്ങൾ വരുന്നത് കുറവായതുകൊണ്ട് ഓരോ സ്ഥലത്തും എത്താൻ നമുക്ക് വേഗം സാധിക്കും

ട്രാഫിക്കുകൾ ഇല്ലാത്തതു കൊണ്ട് നമുക്ക് എവിടെയും പെട്ടെന്ന് എത്താൻ സാധിക്കും പക്ഷേ നമുക്ക് ഇവിടെ സാധാരണ റോഡുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശം വളരെ മോശമാണ് നമ്മുടെ നാട്ടിലത്തെ ചെറു ചെറു സ്ഥലങ്ങളുടെ റോഡും അവിടെ മഴ കയറിയാൽ കുളങ്ങളും ഒക്കെ ആവും റോഡുകൾ പലതും കുഴിയിൽ പാതാളം പോലെ കിടക്കും അതുകൊണ്ട് ഇന്ത്യയിലേ ഗതാഗതം നല്ലവണ്ണം മെച്ചപ്പെടണമെന്നാണ് ആഗ്രഹിക്കുമ്പോൾ എങ്ങനെ മെച്ചപ്പെടണമെന്ന് ചോദിച്ചാൽ എല്ലാ നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ നോക്കണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതും ഓരോ സ്ഥലത്തും ഇനിയും മെച്ചപ്പെടാൻ ഉണ്ട് അവിടെയൊക്കെ ഇതേപോലെ മെച്ചപ്പെടുത്തണം ഇവിടെ ഈ വെള്ളം റോട്ടിൽ കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് കെട്ടിക്കിടക്കുന്നുണ്ട് അത് വെള്ളം മഴ പെയ്താൽ അത് ഒഴുകിപ്പോകാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്

അതുപോലെ അത് ഉണ്ടാക്കിയാൽ ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് ഓരോ വാഹനങ്ങൾ പോകുമ്പോൾ കുഴികൾ ഉണ്ടാവുന്നത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും നമുക്ക് വേണമെങ്കിൽ നോക്കാം ഈ എൻ എച്ചിൽ പൊതുവേ വെള്ളം കെട്ടി കിടക്കാറില്ല കുഴികളും ഉണ്ടാവുന്നില്ല അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഗ്രാമ പ്രദേശങ്ങളിൽ അത് നമുക്ക് കാണുന്നത് ആ കുഴികളുമൊക്കെ അത് ഒന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്താ ഇന്ത്യയിലെ ഗതാഗതം നോക്കൂ പൊതുവേ നമുക്ക് നിരത്താൻ സഹായിക്കും കുഴികളിൽ നിന്നും ഒരുപാട് മെച്ചപ്പെടാൻ കിടക്കുന്നു

അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ ഗതാഗതം നമുക്ക് ഒരുപാട് കൊണ്ടുവരും എല്ലാവരും എല്ലാവരും ഉപയോഗിക്കുന്ന റോഡ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്ന റോഡ് ആയതുകൊണ്ട് നമുക്ക് അത് കുറച്ചുകൂടി പുരോഗമിച്ചാൽ അത് കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ നമുക്കത് ഒരുപാട് ഒരുപാട് കാലം ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം മെച്ചപ്പെടുത്താനുള്ളത്